ഓടുന്ന സമയത്തൊരു പ്രാവശ്യം ഞാ ഓട്ടത്തിന് പോയപ്പോൾ തന്നെ ഓട്ട മത്സരത്തിൽ ഡ്രസ്സ് ഞാൻ ഊരി ആ ബനിയനൂരി ആ നിലത്തിട്ടിരിക്കയായിരുന്നു എന്നിട്ടിപ്പം ബാഗീന്നെടുത്ത് നിലത്ത് വെച്ചിട്ട് അവിടുന്ന് എടുത്തിടുവായിരുന്നു ആ ഇട്ട വഴിക്കെങ്ങാണ്ടെൻ്റെ ബനിയനാത്തൊരു ഉറുമ്പ് കയറി കയറി ഞാനറിഞ്ഞില്ല ഓടാൻ ട്രാക്കി കയറി അവർ വൺ ടു ത്രീ പറഞ്ഞ് കഴിഞ്ഞ് ഓടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ദേഹത്തൂടെ എന്തോ ഇങ്ങനെ ചെറിയ സാധനം എന്തോ ഓടുന്ന് പക്ഷേ ഓടാൻ തുടങ്ങിയില്ലേ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഉറുമ്പ് കടിക്കാൻ തുടങ്ങി ഉറുമ്പ് കടിക്കാൻ തുടങ്ങിയ കാരണം പിന്നെ ഇത് വലിയ മത്സരം അല്ലായിരുന്നു ഞങ്ങളുടെ പ പരിശീലനത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ആ സമയത്തുറുമ്പ് കടിച്ച് എനിക്ക് ഉറുമ്പ് കടിച്ചിട്ടിതാൾക്കാരോട് വല്ലോം പറയാൻ പറ്റുമോ ഞാനൊരു വിധം ഓ ഓടാൻ ഞാൻ കൈ വെച്ച് തൂത്ത് പക്ഷേ ൻ്റെ ഓട്ടത്തിൻ്റെ ആ റണ്ണിങ് സ്പീഡ് കുറയത്തില്ല വേറെ കാര്യത്ത് കോൺസെൺട്രറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാനോന്ന് കഷ്ടപ്പെട്ട് ഫിനിഷ് ചെയ്ത് ഇവിടെ വന്ന് ഞാൻ ഡ്രസ്സ് മാറിയപ്പോൾ എൻ്റെ ദേഹം മുഴുവൻ ഉറുമ്പ് കടിച്ചായിരുന്നു അവിടെ അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ ഭയങ്കര ചിരി